ഞാൻ ഫ്ലിപ്കാർട്ടിൽ കയറി ഒരു ഷൂ വാങ്ങിച്ചിരുന്നു മോന് വേണ്ടിയിട്ട് അത് ഇഞ്ച് പിന്നെ സൈസ് കറക്റ്റ് അല്ല അഞ്ച് ആറാണ് ഞങ്ങൾക്ക് വേണ്ടത് അഞ്ചാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് അവർ ഫ്ലിപ്പ്കാർട്ടിൽ തന്നെ കയറി റിട്ടേൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പം സെയിം റേറ്റ് തന്നെ ഉള്ളതും പിന്നെ കളറും യെസ് കളറും കാര്യങ്ങളുമൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കളറും സ ഇതുമൊക്കെ കറക്റ്റ് ആണ് സൈസ് മാത്രം ഒന്ന് മാറ്റി എടുത്താൽ മതി അതേ സെയിം റേറ്റിൻ്റെ തന്നെ ഞാൻ റിട്ടേൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നു